ആ റസ്റ്റോറൻറ്റ് അല്ലേ ആ ഞങ്ങൾ ഒരു നമ്മളവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയൊരു ഇത്ര പേർക്ക് ഒരു ഇരുപത് പേർക്ക് ടേബിള് ബുക്ക് ചെയ്താൽ നമുക്ക് എത്ര രൂപ ഓഫറ് കിട്ടും ആ ഒരു ഇരുപത് പേരുണ്ടാകും അപ്പോൾ നമുക്ക് എത്ര രൂപ നമുക്കോഫറ് കിട്ടുക ആണോ ആ ആ ഓക്കേ ഓക്കേ ആ അപ്പോൾ ഫുഡിൻറ്റെ കാര്യങ്ങളൊക്കെയെല്ലാം നമുക്ക് ഇത്ര രൂപ ഓഫറ് നമുക്ക് കിട്ടുമോ ടേബിളിൻറ്റെയും ഒരു ഇരുപത് പേരുണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടി മാത്രം ടേബിള് സെറ്റ് ആക്കാൻ വേണ്ടീട്ടായിരുന്നു ആ ഞങ്ങൾ ഫാമിലി ഒക്കെ ആയിട്ടാണ് വരുന്നത് ആ ഞങ്ങൾ എറണാകുളത്ത്ന്നാണ് വരുന്നത് അപ്പം എല്ലാവരും കൂടി ഇങ്ങനേ വരുമ്പോൾ ഒരു ടേബിള് നമുക്ക് ഓഫറിന് കിട്ടുമോ എന്നറിഞ്ഞിട്ട് ഫുഡ് ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കെങ്ങനെയെങ്കിലും ഓഫർ ഒക്കെ ഉണ്ടാകുമോ നമുക്കവിടെ ഓ ആണല്ലേ ആ ആ ഓക്കേ ഓക്കേ ആ ഞങ്ങൾക്ക് വരാനായിരുന്നു ആ ആ ആ ഓക്കേ ഓക്കേ എത്ര ശതമാനം നമുക്കോഫറ് കിട്ടും അവിടുന്ന് നമ്മൾ ടേബിളൊക്കേ ബുക്ക് ചെയ്താൽ ഫുഡൊക്കേ വാങ്ങി ഇതാക്കിയിട്ടുണ്ടെങ്കിൽ ആണോ ആ ആ ഓക്കേ ഓക്കേ ഓക്കേ ആ ശരി ശരി ശരി